ഇപ്പം സാങ്കേതിക വിദ്യയെ കുറിച്ചും കമ്പ്യൂട്ടറുകളെ കുറിച്ചും പഠിക്കാനായിട്ട് ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ് ഇപ്പം കോളേജുകളിൽ ആണെങ്കിലും സ്കൂളുകളിലാണെങ്കിൽ പോലും ഇപ്പം കമ്പ്യൂട്ടറുകളെ പറ്റി ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചു നമുക്ക് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ എളുപ്പമാക്കി കിട്ടുന്നുണ്ട് അപ്പം ഇപ്പം കമ്പ്യൂട്ടറിലാണെങ്കിൽ പോലും എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ തന്നെ കമ്പ്യൂട്ടറ് മലയാളം ടൈപ്പിംഗ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ടൈപ്പിംഗ് മലയാളം ടൈപ്പിംഗ് നമുക്ക് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ ചെയ്യാനാവുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഓരോ കോളേജുകളിൽ ആണെങ്കിലും സ്കൂളുകളിൽ ആണെങ്കിലും പഠിപ്പിക്കുന്നുണ്ട് പിന്നെ കമ്പ്യൂട്ടറുകൾ പഠിക്കാൻ തന്നെയായിട്ട് ഒരു കോഴ്സെന്നു പറയുമ്പോൾ ജി ടെക്ക് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് നമ്മുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കോഴ്സുകൾ ഇഷ്ടം പോലെ പഠിപ്പിക്കുന്നുണ്ട് ജിടെക്കിലാണെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള അക്കൗണ്ടൻ്റായിട്ട് കയറാനാണെങ്കിൽ അക്കൗണ്ടൻ്റിങ്ങ് അക്കൗണ്ടിങ്ങ് അതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ട് പിന്നെ കമ്പ്യൂട്ടറിൽ അത്യാവശ്യം വേണ്ട പ്രിൻ്റ് എടുക്കാനായിട്ട് പ്രിൻ്റ് എടുക്കുന്ന രീതി അങ്ങനെയൊക്കെ ഉള്ളത് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ പ്രിൻ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ വച്ചു ഇപ്പം ഇപ്പം സ്കൂളുകളിൽ ആണെങ്കിലും കോളേജുകളിലാണെങ്കിലും കമ്പ്യൂട്ടറിൽ എങ്ങനെ പ്രിൻ്റ് എടുക്കാം എങ്ങനെ എല്ലാം പ്രിൻ്റിങ്ങ് ചെയ്യാം പിന്നെ എഡിറ്റിങ്ങ് പിന്നെ ഗ്രാഫിക് ഡിസൈൻസ് പോലെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പം കുറേ കമ്പ്യൂട്ടറുപരമായിട്ട് ഇപ്പം കമ്പ്യൂട്ടറ് വേണ്ട ഒരു കാലഘട്ടമാണ് അപ്പം കമ്പ്യൂട്ടറുപരമായിട്ടുള്ള സകല എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ അതെല്ലാം തന്നെ നമുക്ക് ഇപ്പം ഓരോ സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും കമ്പ്യൂട്ടറ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലാണെങ്കിലും നമ്മളെ പഠിപ്പിക്കുകയും ആ അപ്പം അതിന് അനുസരിച്ചുള്ള കോഴ്സുകളൊക്കെയാണ് ഉള്ളത് സ്കൂളിൽ കോളേജുകളിലാണെങ്കിൽ പോലും നമ്മളെ ആദ്യം പഠിപ്പിക്കുന്ന രീതി കമ്പ്യൂട്ടറുകളെ കുറിച്ചു പഠിപ്പിക്കുകയും അതിൻ്റെ ടൈപ്പിങ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മലയാളം ടൈപ്പിങ് അല്ലാതെ ഇംഗ്ലീഷിലാണെങ്കിൽ പോലും എങ്ങനെ ടൈപ്പ് ചെയ്യണം എങ്ങനെ ഒരു ഈമെയിൽ അയക്കണം അല്ലെങ്കിൽ എങ്ങനെ ഒരു നമുക്ക് ഒരു മെസ്സേജ് എങ്ങനെ അയക്കാം ഒരു വാർത്ത എങ്ങനെ റെഡി ആക്കാം തുടങ്ങിയ ഇപ്പം ഒരു കവിത എഴുതാൻ തോന്നിയാൽ നമ്മൾ എങ്ങനെ കമ്പ്യൂട്ടറിൽ കവിതയായി ഇപ്പം ടൈപ്പ് ചെയ്തു എഴുതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് കമ്പ്യൂട്ടറ് കമ്പ്യൂട്ടറിൽ നമുക്ക് ഓരോ ഓരോ ഓരോ കോഴ്സുകൾ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം ടൈപ്പിങ്ങ് തന്നെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ടൈപ്പിങ് പിന്നെ കമ്പ്യൂട്ടറിനെ പറ്റി അറിവ് വേണം കമ്പ്യൂട്ടറ് പഠിക്കാനായിട്ട് അപ്പം പിന്നെ ഒരുപാട് ജോലി സാധ്യത ഉള്ള ഒരു മേഖലയാണ് ഈ കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്നു പറയുമ്പം അത് അക്കൗണ്ടൻ്റ് ആയിട്ട് കയറാൻ പുറത്ത് പുറം രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ തന്നെ നമുക്ക് സാങ്കേതിക സാങ്കേതിക വിദ്യയെ കുറിച്ചു നമ്മൾ നല്ല ബോധവാന്മാരായിരിക്കണം എന്ന് ഉള്ളതാണ് ഇപ്പം കമ്പ്യൂട്ടറ് ഉപയോഗിച്ചു കമ്പ്യൂട്ടർ കോഴ്സെന്നു പറയുന്നത് പോലും ഇപ്പം ഗ്രാമറ് ഗ്രാമർ പഠിക്കണമെങ്കിൽ പോലും ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചു നമുക്ക് ഗ്രാമറ് പഠിക്കാനും പിന്നെ നമുക്ക് ഗ്രാഫിക്ക് ഡിസൈൻസ് ആനിമേഷൻസ് പോലെയുള്ള ആനിമേഷൻ അങ്ങനെ ചിത്രം അങ്ങനെ കാർട്ടൂൺസൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചു ചെയ്യാനുള്ള കോഴ്സുകൾ ഉണ്ട് അപ്പം ഇത്രയൊക്കെയാണ് കമ്പ്യൂട്ടർ കോഴ്സിനെ പറ്റി എനിക്ക് പറയാൻ ഉള്ളത്